ആ ഇത് ബേപ്പൂരിൽനിന്ന് വിളിക്കുന്നതായിരുന്നു ആ പെറ്റ് ഗ്രൂമ് ചെയ്യിക്കാൻ വേണ്ടീറ്റ് ആയിരുന്നു എൻ്റെ ലാബ് ആയിരുന്നു അത് ഇപ്പോൾ രണ്ട് വയസ്സാണ് ഇല്ല ഇത് ഇത് വരെ അങ്ങനത്ത പ്രശ്നങ്ങൾ ഒന്നും ഇല്ല അത് രണ്ട് എണ്ണം ഉണ്ട് എൻ്റ അടുത്ത് ആ രണ്ട് എണ്ണത്തിനെ ചെയ്യിക്കണം ആ രണ്ടിനെയും കൂടി ചെയ്യിക്കാൻ ആയിരുന്നു അല്ല ചെറിയ മാസത്തിലെ വ്യത്യാസം അല്ലെ രണ്ട് മാസത്തിൻ്റ വ്യത്യാസമേയുള്ളൂ

ഇല്ല അങ്ങനത്തെ പ്രശ്നം ഇല്ല അപ്പോൾ നിങ്ങൾ വീട്ടിൽ വന്ന് ചെയ്യുന്നത് ആണോ ആ ആ അപ്പോൾ ഇങ്ങനെത്തന്നെ ആ ഓക്കെ ഓക്കെ അത് വേറെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ലല്ലോ നമ്മളുടെ വീട്ടിൽ വന്ന് ചെയ്യുമ്പോൾ

ആ നിങ്ങൾ വീട്ടിൽ വന്ന് ആ നിങ്ങള് വീട്ടില് വന്നിട്ട് കൊണ്ടുപോവുമല്ലേ ആ അത് എത്ര ഇത് ആ അത് എത്ര ദിവസം ആവും അത് ചെയ്യാൻ ഇത് റെഡി ആവാൻ ഓ വൈകുന്നേരം ആവുമ്പോൾ ചെയ്ത് വിടും അല്ലേ

ആ അങ്ങനത്തെ ഇപ്പോൾ വാഷ് ചെയ്യേണ്ട സംഭവങ്ങൾ ഒക്കെ നമ്മൾ കൊണ്ടുവരേണ്ടി വരുമോ

നിങ്ങള് കൊണ്ട് ചെയ്യുന്നതിനോ ആ അപ്പോൾ വന്ന് ചെയ്യുമായിരുന്നെങ്കിൽ

ആ ഓക്കെ ഓക്കെ ആ ആ ഇക്ക കടിക്കുമോ ഇത് ഒക്കെ ആക്കി ചെയ്യുമ്പോൾ എന്തെങ്കിലും വിഷയം വരുമോ പെറ്റിന് അത് എങ്ങനെ ഇല്ല ഇല്ല അല്ലെ അല്ലെ അല്ലെ

ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ അത് നിങ്ങള് വന്ന് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുമോയെന്ന് നോക്കിയിട്ട് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ താങ്ക് യു